എന്താ ഹെൽപ്പ് വേണ്ടത് അതെയാ ആ അതിന് കുറച്ച് ആപ്ലിക്കേഷൻസെല്ലാം വേണമല്ലോ അതെല്ലാം ശരിയായിട്ടുണ്ടോ അതിന് ആ നിങ്ങൾ കൊ ദൂരം ആണോ അതെയാ ആ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാങ്ക് വരെ ഒന്ന് വരാമോ വന്നിട്ട് കുറച്ച് കുറച്ച് ഡോ കുറച്ച് ഡോക്യുമെൻ്റ്സ് സബ്മിറ്റാക്കണം അതായത് വീടിൻ്റെ വീടിൻ്റെ ആധാരം ആ പിന്നെ നിങ്ങളുടെ ഫുൾ സൈസ് ഫോട്ടോ രണ്ടെണ്ണം പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ടെണ്ണം പിന്നെ ആധാർ കാർഡ് പാൻ കാർഡ്

മാക്സിമം ഒരു ടു മന്ത്സ് എടുക്കും ഇതൊക്കെ സബ്മിറ്റായി ഒന്ന് ആ ആവണെങ്കിൽ

ആ ഇൻ്ററസ്റ്റ് നമ്മൾ ലോ ആണ് ചാർജ് ചെയ്യുന്നത് ഹോം ലോണിൽ

ഒരു ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റ് ഓക്കെ ടെൻ ആ ആ പറഞ്ഞോളൂ

ആ സിഗ്നേച്ചറ് നിങ്ങൾ കോമണായിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നേച്ചറ് തന്നെ ആ ഒരു ആ സബ്മിറ്റ് ചെയ്താൽ മതി പിന്നെ ഈ പറഞ്ഞ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഒരു നോമിനി വേണം നിങ്ങൾ ഒന്ന് ബാങ്കിലേക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വരുക ഇന്നോ നാളെയോ ആയിട്ട് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ